ആ ആ ചേച്ചി വെരൂ അതെയല്ലേ ഏതിൻ്റെ ഏത് ബ്രാൻ്റാണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് എൽ ജിയുണ്ട് പിന്നെ എം ഐൻ്റെയുണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് എം ഐൻ്റെയാണ് പക്ഷേ ബ്രാൻഡും ഐഡിയും നമ്മൾ നോക്കുകയാണ് പറയുമ്പോൾ എൽ ജി സാംസങ്ങൊക്കെ നല്ല ബ്രാൻ്റാണ്

ഇതാണിപ്പോൾ എൽ ജിൻ്റെ വരണത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുപ്പത്തിരണ്ട് ഇഞ്ചാണോ വേണ്ടത് അതോ മുപ്പത്താറാണോ എത്രയാണ് വേണ്ടത് ഇഞ്ച് ആ മുപ്പത്താറല്ലെങ്കിൽ നാല്പത് ഏകദേശം നോക്കാം നമുക്ക് അതിന് ആ അത്ര റേറ്റ് വലിയ വ്യത്യാസം വരുന്നില്ല ഏകദേശം അടുത്തടുത്ത റേറ്റാണ് വരണത് ഇതിലിപ്പോൾ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഹോം ഹോം തീയറ്ററ് സെറ്റ് സെറ്റ് ചെയ്യാം പിന്നെ ഫോണും നമുക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും എം ഐ കുറച്ച് റേറ്റ് ആ പ്രെയ്സില് മാത്രമാണ് റേറ്റ് റേറ്റ് അതുതന്നെ റേറ്റിന് മാത്രമാണ് നമുക്കതില് വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം ഇപ്പോൾ കുറച്ചുംകൂടി നമുക്ക് നോക്കുകയാണ് പറഞ്ഞാൽ ഇതാണ് നല്ലത് ഇല്ല എൽ ജിൻ്റെയാണ് നല്ലത് കാരണം മറ്റേത് ചൈനീസ് കമ്പനിയാണ് ഇതാകുമ്പോൾ ബ്രാൻ്റ് വാല്യുവുള്ള കമ്പനിയാണ് റീസെയിൽ വാല്യു ഉണ്ടാവും ആ ഓക്കെ വേറെന്തൊക്കെയാണ് വേണ്ടത് മേഡം ഫ്രിഡ്ജ് വേണമല്ലേ ഫ്രിഡ്ജിപ്പോൾ ഏതു കമ്പനീൻ്റെയാണ് നോക്കണത് വേൾപൂളാണോ അതോ ഇതേപോലെ സാംസങ്ങിൻ്റെയുണ്ട് അത് വേണോ ഇല്ല എല്ലാത്തിലും ബ്രാൻ്റ് വാല്യു ഉള്ളതാണ് അതുപോലെ നമുക്ക് രണ്ടു വർഷത്തെ വാറൻ്റി വരുന്നുണ്ട് ഡബിൾ ഡോറ് വരുന്നുണ്ട് സിംഗിൾ ഡോറ് ഏതാണ് വേണ്ടത് ഡബിൾ ഡോറ് വേണോ സിംഗിൾ ഡോറ് വേണോ സിംഗിൾ ഡോറാണോ സിംഗിൾ ഡോറാവുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങ് പ്രൈസ് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് വേൾപൂളിൻ്റെ അല്ലാണ്ട് വേറെ ബ്രാൻ്റിപ്പോൾ എം ഐൻ്റെ വരുമ്പോൾ ഒര് രണ്ട് ഒന്നര ഉറുപ്പയ കമ്മിയാവും പത്ത് അഞ്ഞൂറിനാണ് സ്റ്റാർട്ടിങ്ങ് വരുന്നത് സാംസങ്ങ് വന്നിട്ട് കുറച്ചും കൂടി വില കൂടുതലാണ് റേറ്റ് പതിനാറ് അഞ്ഞൂറ് വരും സിംഗിൾ ഡോറിന് സ്റ്റാർട്ടിങ്ങ് റേറ്റ് പതിനാറ് അഞ്ഞൂറാണ് വരണത് വേൾപൂളല്ലേ ഏത് കളറാണ് വേണ്ടത് ഗ്രേ കളർ അല്ലേ ആ ഓക്കെ അതെടുക്കാം ഇതു വേണോ ഇതിപ്പോൾ നമ്മളങ്ങോട്ട് എത്തിച്ചു തരണോ അതോ നിങ്ങളിവിടെ നിന്ന് എങ്ങനെയാണ് കൊണ്ടുപോണത് ആ ഓ

വാഷിംങ്ങ് മെഷീൻ വേണമല്ലേ ആ വാഷിങ്ങ് മെഷീൻ ഇപ്പോൾ ഏതാണ് ഫ്രണ്ട് ഡോറോ ഫ്രണ്ട് ഓപ്പണാണോ ടോപ് ഓപ്പണായിട്ടുള്ളത് വേണോ ഫുള്ളി ഓട്ടോമാറ്റിക്ക് എങ്ങനത്തെയാണ് വേണ്ടത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണല്ലേ അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക്ക് നമുക്കിതേപോലെ ഏത് ബ്രാൻ്റാണ് വേണ്ടത് സാംസങ്ങ് വേണോ അതോ എം ഐൻ്റെ വരുന്നുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് എൽ ജിൻ്റെ വരുന്നുണ്ട് ആ നമ്മുടെ ബ്രാൻ്റേ നമുക്ക് എൽ ജി നല്ല ബ്രാൻ്റാണ് കൊറച്ചും കൂടി കംഫോർട്ട് കംഫോർട്ടിപ്പോൾ എല്ലാം ഏകദേശം ഏതും എൽ ജിൻ്റെ വന്നിട്ട് എറൗണ്ട് ഏയ്റ്റീൻ തൗസൻ്റ് വരുന്നുണ്ട് അത് കാര്യമാക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഡിസ്ക്കൗണ്ടൊക്കെയിട്ട് റെഡി ആക്കാം അതൊക്കെ നമുക്ക് റെഡിയാക്കാം ഡിസ്ക്കൗണ്ടൊക്കെ റെഡിയാക്കാം ആ ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നും കൂടി ഏകദേശം വന്നിട്ടിപ്പോൾ എഴുപത്തി എട്ടായിരത്തിനടുത്ത് ബില്ലായിട്ടുണ്ട് അപ്പോൾ മാമ് ഒരു അറുപത്തിയഞ്ചിന് നമുക്കത് റെഡിയാക്കാം രണ്ട് ഓഫറ് കഴിഞ്ഞിട്ട് അത് രണ്ട് രണ്ടോഫറിട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കണത് ഇനി ഇതിൽ നിന്നും കമ്മിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ല ഇനി നമ്മൾ ആ പതിമൂന്ന് രൂപയൊക്കെ കമ്മിയാക്കി തന്നിട്ടുണ്ട് ഇനി കമ്മിയാക്കാമെന്നു പറയുമ്പോൾ നമുക്ക് നഷ്ടം വരും അത് എന്താണ് മേഡം ഒരു അറുപത്തഞ്ചിന് നമുക്കുറപ്പിക്കാം ഇനിയിപ്പം അതിൽ നിന്നും കമ്മിയാക്കണ്ട ഇല്ല നമ്മളവിടെ എത്തിച്ചു തരാം അറുപത്തഞ്ച് ഇനി അതൊന്നും കമ്മിയാക്കണ്ട സംഭവം വീട്ടിലെത്തിച്ച് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ഇതിപ്പോൾ തന്നെ സംഭവം വണ്ടിയിൽ നിന്നിവിടെനിന്ന് കയറ്റി വിടാം ഒരു ഇൻസൊലേഷൻ വണ്ടിയുടെ നാളെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ആൾ വരും നമ്മുടെ കാഡ് തരാം എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒക്കെ തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിളിച്ചാൽ മതി അഡ്രസ്സ് നമുക്ക് താഴെ കൊടുത്താൽ മതി മേഡം ഓക്കെ ഓക്കെ